ആ ഡ്രോയിങ്ങ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഡ്രോയിങ്ങ് ക്ലാസ്സുകളുണ്ടായിരുന്നു നമ്മൾ ഡ്രോയിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുവായിരുന്നു നമ്മൾക്ക് ഡി ഡ്രോയിങ് എടു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്ണ്ടായിരുന്നു ടീച്ചർമാര് നമുക്ക് പറഞ്ഞു തരുന്ന നമുക്ക് എന്നാ പിന്നെ ഡ്രോയിങ് ക്ലാസ്സിൽ നമുക്ക് വരയ്ക്കാനും കളർ പെയിൻറിങ്ങിനും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്തു തരുമായിരുന്നു അങ്ങനെ നമ്മള് പഠിച്ച ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അതിൻ്റെ ക്ലാസ് കിട്ടി നമ്മളതില് പങ്കെടുക്കുവായിരുന്നു നമുക്കൊരു വിഷയം ഡ്രോയിങ്ങ് ക്ലാസ് തന്നെയായിരുന്നു ഒരു ദിവസത്തിൽ ഒരു വിഷയം ഡ്രോയിങ്ങ് ക്ലാസ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് നമുക്ക് വരയ്ക്കാനും വയ നല്ല ഇഷ്ടമാണ് നമ്മളതിൽ പങ്കെടുത്തു കൊണ്ടിരുന്നു വരച്ചു വരയ്ക്കുമായിരുന്നു